സാഹിത്യത്തിലും കവിതയിലും മറ്റ് കലാവിഷ്ക്കാരങ്ങളിലും മലയാളഭാഷ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് കേരളത്തിൽ ഇപ്പോൾ നിലവിൽ ഒരുപാട് സാഹിത്യങ്ങളും കവിതകളും അതുപോലെ തന്നെ ഒരുപാട് കലാരൂപങ്ങളും നിറഞ്ഞ ഒരു സംസ്ഥാനമാണ് കേരളം ഇവിടെ ഒരുപാട് സാഹിത്യകാരന്മാരും രചിയിതാക്കളും നമുക്കുണ്ട് കുമാരനാശാൻ ഓ എൻ വി കുറുപ്പ് സുകുമാരി ദേവി പിന്നെ ഇവരുടെ എല്ലാം രചനകളിലൂടെ മലയാളം എന്ന് പറയുന്ന ഭാഷയ്ക്ക് മുൻപോട്ട് മുൻതൂക്കം നൽകുന്നതാണ് ഇവരുടെ ഭാഷാശൈലി ഇവരുടെ സാഹിത്യങ്ങളിലും കവിതകളിലുമെല്ലാം അർത്ഥവത്തായ മനോഹരമായ വാക്കുകളാണ് ഇവര് ഉപയോഗിച്ചിരിക്കുന്നത് പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ മലയാളം വളരെ പുറകോട്ടാണെല്ലാവരും ഉപയോഗിക്കുന്നത് വളരെ കുറവാണ് അതിന് പകരം പുതിയ പുതിയ ഭാഷകളാണെല്ലാവരും ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് പോരാത്തതിനിപ്പോൾ ജർമ്മൻ ഇറ്റാലിയൻ അങ്ങനെ ഒരുപാട് ഭാഷകളിപ്പോൾ ഉപയോഗിക്കുന്നു മലയാളത്തിൻ്റെ തൂക്കം കുറഞ്ഞ് കൊണ്ടിരിക്കുകയാണ് വരും കാലഘട്ടങ്ങളിൽ പക്ഷേ ആ ആഴമായി സാഹിത്യങ്ങളിലേക്കിറങ്ങുമ്പോൾ കലാരൂപങ്ങളിൽ തന്നെ ചാക്യാർകൂത്ത് കഥകളി അങ്ങനെ ഒപ്പന മാർഗ്ഗം കളി ഇതുപോലെയുള്ള കലാരൂപങ്ങളിലും എല്ലാം മലയാള ഭാഷാവിഷ്ക്കാരണത്തിനുള്ള കാര്യങ്ങളും പാട്ടുകളും രചനകളുമാണ് നമ്മളുപയോഗിച്ചിരിക്കുന്നത് അതാണ് മലയാള മലയാളത്തിനെ ഏറ്റവും ആകർഷിക്കുന്ന ഒരു ഘടകമെന്ന് പറയുന്നത് ദ്രാവിഡ ഭാഷാ ഗോത്രത്തിൽപ്പെടുന്ന ഒരു ആധുനിക ഭാഷയാണ് മലയാളം എ ഡി ഒമ്പതാം നൂറ്റാണ്ടിലാണ് ഭാഷാ ദ്രാവിഡത്തിലൊരു ഉപഭാഷ എന്ന നിലയിൽ പ്രത്യേക ഭാഷയായി രൂപപ്പെട്ടത് എന്നാണ് പൊതുവായ നിഗമനം മലയാളഭാഷയിലെഴുതപ്പെട്ട ആയത്തെ ആദ്യത്തെ കാണപ്പെട്ട രേഖ ചേര ചക്രവർത്തിയായിരുന്ന രാജശേഖരൻ്റെ പേരിലുള്ള വാഴപ്പള്ളി ശാസനമാണ് ഇപ്പം നമ്മളൊരു ലൈബ്രറിയിൽ ചെന്നാൽ തന്നെ മലയാള സാഹിത്യം അല്ലെൽ കവിത സംഹാരം ഇങ്ങനെ പല പല സെക്ഷനായിട്ടായിരിക്കും പുസ്തകങ്ങള് അറേയ്ഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്കതിലെല്ലാം ഒരുപാട് വെറൈറ്റിസ് ഓഫ് സാഹിത്യങ്ങളും ഒരുപാട് സാഹിത്യകാരന്മാരെക്കുറിച്ചറിയാനും കവികളെക്കറിയിച്ചറിയാനുമുള്ള അവസരം നമുക്കുണ്ട് വരും കാലങ്ങളിൽ എനിക്ക് തോന്നുന്നു മലയാളത്തിനെ എന്താണ് മലയാളഭാഷ എന്നത് പുതു തലമുറ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരേ ഒരു ഘടകമാണ് ഈ സാഹിത്യങ്ങളും കവിതകളും കലാരൂപങ്ങളുമെല്ലാം എന്ത് കൊണ്ടും മലയാളം വേറിട്ട് നിൽക്കുന്നതും മുൻതൂക്കം ഉള്ളതായിട്ട് നിൽക്കുന്നതിനും കാരണം നമ്മുടെ സാഹിത്യകാരന്മാരെഴുതിയ പ്രമുഖ സാഹിത്യങ്ങളും കവിതാ സംഹാരങ്ങളുമെല്ലാമാണ് വരും തലമുറ എന്തോരും മലയാളത്തിനെ മലയാളഭാഷയെന്നത് എന്തെന്ന് മനസ്സിലാക്കും എന്നത് കണ്ട് തന്നെ അറിയണം